ഞങ്ങള നാട്ടിൽ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറെയധികം ട്യൂറിസ്റ്റ് സ്പോർട്ട്സൊക്കെ വന്നിട്ടുണ്ട് അതിപ്പം ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ തന്നെ കുറുവ ദ്വീപ് അതേപോലെ പൂക്കോട് ലെയ്ക്ക് മാവിലാംതോട് അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പോൾ കുറുവയിലൊക്കെയാണെങ്കിൽ ഫുഡിനൊക്കെ നല്ല അവർ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ സെറ്റാണ് അവിടെയൊക്കെ കുറേ ഷോപ്പൊക്കെയുണ്ട് പക്ഷെ കാലാവസ്ഥയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറുവയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ നമ്മളെ അങ്ങോട്ട് അവർ കയറ്റി വിടത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരും ആ ഗതാഗതം ഒക്കെയാണെങ്കിൽ കുറുവയിലേക്കുള്ള ആ ഒരു റോഡൊക്കെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ് എന്താ പറയുക ആ അതിൻ്റെ ഒരു രീതിയാണെങ്കിലും നമുക്ക് അധികം എന്താ പറയുക തിക്ക് തിരക്ക് അങ്ങനെയൊന്നും വരില്ല നമുക്ക് ട്രാഫിക്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഈ ഈ ഞങ്ങളെയൊരീ പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളും സ്ഥലങ്ങളും അവർക്കധികം വിനോദ സഞ്ചാരികൾക്ക് അധികം വെല്ലുവിളികളൊന്നും നേരിടാൻ നേരിടേണ്ട അവസ്ഥ വരില്ല